കേരളത്തിൽ വരുന്ന വിനോദസഞ്ചാരികളുമായിട്ട് ഒരുപാട് പരിചയപ്പെടലും ഒരുപാട് അവരുമായിട്ട് ഇടപഴകിയിട്ടുണ്ട് അപ്പോള് ഇടപഴകുമ്പോള് കൂടുതലും കേരളത്തിനു പുറത്തുള്ള ഫോറിനേഴ്സായിട്ടുള്ള വിനോദസഞ്ചാരികൾ കേരളത്തിലേക്ക് വരുമ്പോള് ഒരുപാടൊരുപാട് എക്സ്പീരിയൻസസ് അവരോട് ഒരുപാട് അനുഭവങ്ങൾ അവര് പങ്കുവെക്കുകയും കൂടുതലും കേരളത്തിൻ്റെ മികവും കേരളത്തിൻ്റെ സാധ്യതകളും കേരളത്തിലെ നമുക്കുള്ള ഒരുപാടൊരുപാട് വിനോദ സഞ്ചാര മേഖലകളെപ്പറ്റിയുള്ള അവരുടെ അനുഭവങ്ങളാണ് പങ്കുവെക്കുന്നത് പിന്നെ കേരളത്തിലെ ഫുഡ് ഏറ്റവും നാടൻ ഭക്ഷണങ്ങൾ അവർക്കേറ്റവും ഇഷ്ടമാണ് കൂടുതലും അവര് പങ്കുവെക്കുന്നത് കേരളത്തിലെ വാക്ക്വാട്ടേഴ്സ് എന്ന് പറയുന്ന ആലപ്പുഴയിലെ ബോട്ടും അതുപോലെതന്നെ ഹൗസ് ബോട്ട് അതുപോലെതന്നെ പുഴകള് അതുപോലെതന്നെ അവിടെയുള്ള നല്ലനല്ല പച്ചപ്പ് നിറഞ്ഞ കാഴ്ചകൾ പിന്നെയും കേരളത്തില് മലമുകളിൽ മലമുകള് എന്ന് പറയുന്ന നമ്മുടെ മൂന്നാര് അതുപോലെ ഇടുക്കി അങ്ങനെയുള്ള മലമ്പ്രദേശങ്ങളൊക്കെ എത്രത്തോളം ആസ്വാദകരമാണ് അവര് പറയുന്നുണ്ട് അപ്പോൾ അവർ ഒരുപാട് ഒരുപാട് ഒരുപാട് ഒരുപാട് മെ ഒരുപാട് ഒരുപാട് മെമ്മറികൾ ഒരുപാട് സാദ്ധ്യതകൾ ഒരു ഒത്തിരി വളരുവാനായിട്ട് വീണ്ടും വീണ്ടും കേരളത്തിന് സാധിക്കുമെന്ന് അവർ പങ്കുവെക്കുന്നുണ്ട് ഒത്തിരി ഒത്തിരി ടൂറിസ്റ്റ് സ്പോട്ടുകൾ വിനോദസഞ്ചാര മേഖലകൾ കേരളത്തിൽ ഇനിയും വളർത്തിയെടുക്കുവാൻ പറ്റുമെന്ന് അവര് വീണ്ടും വീണ്ടും നമ്മളോട് പറഞ്ഞുതരുന്നുണ്ട് അതുപോലെതന്നെ അവർക്കേറ്റവും ഇഷ്ടമുള്ള ഒരു വിനോദസഞ്ചാര മേഖലയാണ് ഞാൻ ആദ്യം ഓർമിപ്പിച്ചതുപോലെ നമ്മുടെ ആലപ്പുഴയിലെ ഹൗസ് ബോട്ട് അവിടെ ഒരു ദിവസം ഒരു ദിവസം അവര് ഹൗസ് ബോ ഹൗസ് ബോട്ടിൽ യാത്ര ചെയ്യുമ്പോൾ അവര് കാണുന്ന കാഴ്ചകളെന്ന് പറയുന്നത് ഏറ്റവും നല്ല കാലാവസ്ഥയും അതുപോലെതന്നെ പച്ചപ്പ് നിറഞ്ഞ ഭൂമിയും അതുപോലെതന്നെ തെങ്ങുംതോപ്പുകളും ഫിഷിംഗ് അതുപോലെതന്നെ മീനെ പിടി മീൻ പിടിക്കുന്നതായിട്ടുള്ള കാഴ്ചകല് അവര് ഏറ്റവും കൂടുതൽ ആസ്വാദനം അവര് കൊള്ളിക്കുകയും ചെയ്യുന്നുണ്ട് മൂന്നാറിലേക്കൊക്കെ ചെല്ലുമ്പോൾ കേരളത്തിൻ്റെ കാലാവസ്ഥ തണുപ്പ് അവര് ഏറ്റവും കൂടുതൽ നല്ലരീതിയിൽ അവർ ആസ്വദിക്കുകയും ചെയ്യുന്നു ഇതാണ് അവരിൽനിന്നു അവിടെ ഈ സ്ഥലങ്ങളിലെപ്പറ്റി പഠിച്ചതും അവരിൽനിന്നുണ്ടായ അനുഭവങ്ങളും